ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ എക്കാലത്തെയും പ്രസക്തമായ വാക്കുകളാണ് നമുക്ക് ഈ കാലഘട്ടത്തില് പ്രസക്തമാക്കാന് സാദ്ധ്യമാകുന്നത് എന്റെ നാട് വളരെ മനോഹരമായ ഇലോബാലം എന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഇവിടെ എല്ലാ ജാതി ജാതിയിലും മതത്തിലുമുള്ള ജനങ്ങള് ഒന്നിച്ചാണ് ജീവിക്കുന്നത് ഇവിടെ സന്ധ്യക്ക് ബാങ്ക് വിളിക്കുമ്പോള് അമ്പലത്തില് അമ്പലത്തിലെ പാട്ട് ഓഫാക്കും ഇവിടെ എല്ലാ ആഘോഷങ്ങള്ക്കും ജനങ്ങള് ഒന്നിച്ചാണ് കാണാറുള്ളത് സമൂഹത്തില് മതത്തിനു വളരെ പ്രാധാന്യമുണ്ട് ആള്ക്കാരെ ജനങ്ങളെ കൂടുതല് അടുപ്പിക്കുവാന് മതങ്ങള് നോക്കുന്നു എന്നാല് ചില ആളുകള് മതങ്ങള് കൊണ്ട് അടിയും പ്രശ്നങ്ങളും ഉണ്ടാക്കാന് നോക്കുന്നുണ്ട് എന്റെ ഈ കുഞ്ഞുനാട്ടില് അമ്പലത്തില് ഉത്സവം വരുമ്പോള് ഡിസംബര് മാസമാണ് നമുക്ക് ഉത്സവമുണ്ടാകുക അമ്പലത്തില് ഉത്സവം വരുമ്പോള് എല്ലാ മതത്തിലുള്ള ആളുകളും ഇവിടെ പരി പരിപാടി കാണാന് എത്തും അവർ വളരെ സന്തുഷ്ടരായിരിക്കും അതേപോലെയാണ് ക്രിസ്മസിന് ക്രിസ്മസിന് എല്ലാ ജാതിയിലുള്ള കുട്ടികളും ഒത്തു ചേര്ന്നു കരോളിനു പോകുന്നു കരോളിനു പോയി അവര് എല്ലാ വീടുകളിലും കേക്കും മറ്റും മുട്ടായികളും വിതരണം ചെയ്യുന്നു അത് ജാതിയും മതവും ഒരു വേര്തിരിവുമില്ലാതെ എല്ലാ വീടുകളിലെയും മുട്ടായി കൊടുക്കുന്നു അവർ അവരാല് കഴിയുന്ന സംഭാവനകളും കുട്ടികള്ക്ക് കൊടുക്കുന്നു അതുപോലെ പള്ളിയില് പെരുന്നാളാകുന്ന സമയവും നബിദിനമാകുന്ന സമയവും കുട്ടികള് എല്ലാവര്ക്കും മുട്ടായികള് വിതരണം ചെയ്യും മുട്ടായികള് വിതരണം ചെയ്യുകയും പെരുന്നാളിന് എല്ലാ ജാതിയിലുള്ള ആള്ക്കാര്ക്കും പള്ളിയില് നിന്നു ഭക്ഷണം കൊടുക്കുകയും ചെയ്യും പള്ളിയില് പൈസ പള്ളിക്ക് എന്തെങ്കിലും പൈസക്ക് അത്യാവശ്യം വന്നാല് അമ്പലവും ക്രിസ്ത്യന് പള്ളിയും ചേര്ന്നു സഹായിച്ച് പള്ളി പുനര്നിര്മ്മാണം ചെയ്യുകയോ അങ്ങനെ മറ്റും ചെയ്യുകയാണ് പതിവ് നമ്മുടെ സമൂഹത്തില് മതം എല്ലാ ആളുകളെയും ഒരുമിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് മതമുപയോഗിച്ച് പല ആളുകളും അടിയുണ്ടാക്കുന്നുണ്ട് എങ്കിലും മതവും അന്ധവിശ്വാസങ്ങളും നല്ലതാണ് അന്ധവിശ്വാസം നല്ലതല്ല മതം നല്ലതാണ് അന്ധവിശ്വാസം ഒരിക്കലും നല്ലതല്ല മതം സമൂഹത്തിലെ ജനങ്ങളെ തമ്മില് ഒരുമിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ചില ആളുകള് മതത്തെ അന്ധവിശ്വാസമായി എടുക്കുന്നുണ്ട് അത് ഒരിക്കലും നല്ല കാര്യമല്ല